ഇപ്പോൾ മതങ്ങളെക്കുറിച്ച് പറയാണെന്ന് പറയുമ്പോൾ കുറെയധികം മതങ്ങളിപ്പോൾ ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിം മുസ്ലിം മതങ്ങളുണ്ട് ഹിന്ദുമതം ഉണ്ട് ഇതാണ് മെയിനായിട്ട് നമ്മള് പിന്നെ ജൈനമതമുണ്ട് പാലക്കാട് ജില്ലയില് ഇതിലിപ്പോൾ നമുക്ക് ഇഷ് ഹിന്ദുമതം മുസ്ലിം മതം ക്രിസ്ത്യൻ മതമാണ് മെയിനായിട്ട് നമ്മുടെ ജില്ലയില് കാണപ്പെടുന്നത് ഹിന്ദുക്കളുടെ മതംന്ന് ഇപ്പോൾ നമ്മള് പറഞ്ഞ രാവിലെ എണീച്ച് അവര് അമ്പലത്തിൽ പോകും കൃത്യമായിട്ട് നമ്മളൊക്കെ അമ്പലത്തിൽ പോവുക ഉത്സവങ്ങൾക്ക് നല്ല രീതിക്ക് ഇപ്പോ ഓണം ആയാലും വിഷു ആയാലും അതുപോലത്തെ ഉത്സവങ്ങള് പിന്നെ അമ്പലത്തിലെ വേലാപുരം കാര്യങ്ങള് അപ്പോൾ അതിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ വരും മെയിനായിട്ട് നമ്മളമ്പലം കാര്യങ്ങളൊക്കെ ആയിട്ട് കേന്ദ്രീകരിച്ച് നല്ല രീതിയിലുള്ള വസ്ത്രധാരണ കാര്യങ്ങളും അങ്ങനെയാണ് പിന്നെ അതിൻ്റെ ആചാരങ്ങള് ഇപ്പോൾ ഓണത്തിന് ആണെങ്കി പൂക്കളം ഇടും ഭക്ഷണം സദ്യ കഴിക്കും മാതോരുവയ്ക്കും വിഷുവിന് വിഷുക്കണി ഇണ്ടാവും ദീപാവലിക്ക് ദീപം തെളിയിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മള് മെയിനായിട്ട് വരുന്നത് ഇപ്പോൾ മുസ്ലിങ്ങൾ ആണെന്ന് പറയുമ്പോൾ അവര്ക്ക് മറ്റേ റംസാൻ മാസത്തില് വ്രതം എടുക്കണ പരിപാടി മുപ്പത് ദിവസത്തെ വ്രതം കാര്യങ്ങളങ്ങനെ അതായത് ഭക്ഷണം കഴിക്കാതെ ഫസ്റ്റ് അങ്ങനെ ആചരിക്കുക പിന്നെ അവരുടെ എന്താ പറയാ വലിയ പെരുന്നാള് ചെരിയ ചെറിയ പെരുന്നാള് അങ്ങനത്തെ കാര്യങ്ങള് ക്രിസ്ത്യാനികളെ നോക്കുവാണേൽ പറയുമ്പോൾ അവര്ക്ക് വെൽ മറ്റേ ദുഃഖവെള്ളി പെസഹ വ്യാഴം പിന്നെ ക്രിസ്മസ് അങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്ത്യാനികളുടെ മെയിനായിട്ട് ആചരിച്ച് വരുന്നത്